ഇപ്പോൾ എന്റെ ഇവിടെ രണ്ട് മൂന്ന് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ താഴെ വീടിൻ്റെ താഴെ കുറച്ച് കടകൾ ഉണ്ട് അവിടുത്തെ പലചരക്ക് കട എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു പലചരക്ക് കടകളാണ് അതായത് പഞ്ചസാര അരി മൈദ അങ്ങനത്തെ ചെറിയ ചെറിയ രീതിയിലുള്ള പലചരക്ക് കടയാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടിക്കുളം മാനന്തവാടി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇവിടെ ചെറുകിട വ്യവസായം കാര്യങ്ങൾ അങ്ങനത്തെ പലചരക്ക് കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഇവിടുത്തെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിലപേശാറ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഇവർ എല്ലാവരും എന്താണ് പറയുക ചെറിയ രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ നമ്മൾ ഓവർ വിലപേശിക്കഴിഞ്ഞാലും വലിയ ഇവർക്ക് വലിയ ഇവർക്ക് ഒന്നാമത് വലിയ ലാഭം ഒന്നും ഇല്ലാണ്ടാണ് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടി കൂടിയത് കൊണ്ട് ഇവർക്ക് ഒന്നാമത് വലിയ കാര്യമായിട്ട് ലാഭമോ കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പം എന്തെങ്കിലും സാധനം വാങ്ങി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ രൂപയൊക്കെ ലാഭം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അതിനും നിന്നും വിലപേശിക്കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ വിലപേശാറില്ല